ഒത്തുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുമായി ജോലി എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് തുടക്കത്തിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ജോലിക്കിടയിൽ അവരുമായി സംസാരിക്കാനുള്ള സാഹചര്യം വളരെയേറെ കുറവായിരുന്നു എങ്കിലും ഇടവേളകളിലൊക്കെ ഞങ്ങൾ ചെറിയൊരു പുഞ്ചിരി പുഞ്ചിരി തൂകി ഞങ്ങളുടെ പിണക്കം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കി തെറ്റ് തിരുത്തി ക്ഷമ ചോദിച്ചോ ഒക്കെ ഞങ്ങൾ ആ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു അങ്ങനെ അവരുമായിട്ടുള്ളതൊക്കെ പിണക്കം മാറ്റി ഞങ്ങൾ ജോലി കണ്ടിന്യു ചെയ്തു